ഇപ്പഴത്തെക്കാലത്ത് സ്മാർട്ട്ഫോൺ ഉപയോഗിക്കാറുള്ളന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നമുക്കിപ്പം നമ്മുടെ എന്താവശ്യങ്ങളും നമുക്ക് സ്മാർട്ട്ഫോൺ വഴി എളുപ്പത്തില് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയും കാരണം പണ്ടോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി അവിടെപ്പോയി അവിടെപ്പോയി അടയ്ക്കണം പിന്നെ നമുക്കിപ്പം എന്തേലും വാങ്ങണമെങ്കിൽ പൈസ നമ്മുടെ കയ്യീന്നെടുത്ത് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ പക്ഷേ ഇപ്പത്തെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മടെ ടീവീടെ കേബിളിൻ്റെ ബില്ലടയ്ക്കണമെങ്കിൽ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കണമെങ്കിൽ അങ്ങനെ ഒരുപാട് അങ്ങനത്തെ എന്ത് കാര്യങ്ങളാണെങ്കിൽ പൈസ അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലത്തന്നെ നമുക്കൊരാൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ നമ്മളിപ്പം ഒരു സാധനം ഒരു കടയിൽ നിന്നുപോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ അങ്ങനെ ഒരുപാട് എന്ത് കാര്യത്തിനാണേലും പൈസ നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമുക്ക് ട്രാൻസ്ഫറ് ചെയ്യാൻ കഴിയുന്നുണ്ട് അങ്ങിനൊരുപയോഗം ഇപ്പഴത്തെക്കാലത്ത് ഈ സ്മാർട്ട് ഫോണ് കൊണ്ട് ഉണ്ട് അതുപോലത്തന്നെ നമുക്കിപ്പോൾ ഒരു ഹോട്ടലിലൊരു റൂമ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അതുപോലത്തന്നെ നമുക്കിപ്പം എന്തേലും ഒരു കാര്യം ഓ ഓ നമുക്കിപ്പം എന്തേലും കാര്യം ഓൺലൈനില് നമക്ക് ഷോപ്പിങ്ങ് ചെയ്യണമെങ്കിൽ മിന്ത്ര മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആപ്പുകളുണ്ട് ഡ്രസ്സ് വാങ്ങണമെങ്കിൽ ഡ്രസ്സ് നമുക്ക് ഓർണ്ണമെൻറ്സ് വാങ്ങണമെങ്കിൽ അത് ചപ്പല് വേണമെങ്കിൽ അത് അങ്ങനെ എന്ത് കാര്യം വാങ്ങണമെങ്കിലും അത് നമുക്ക് ഓൺലൈനായിട്ട് ഇതാക്കാൻ പറ്റും മേടിക്കാൻ പറ്റുന്നെയാണ് അതുപോലെത്തന്നെ നമുക്കിപ്പോൾ പഠിക്കുന്നതായിട്ടോ അങ്ങനെ എന്തേലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ ക്രോം അങ്ങനെ എന്ത് ആപ്പ് വഴിയും നമുക്ക് അത് ആ ഡൗ ഡൗട്ട് ക്ലിയറെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിപ്പം എന്ത് ഡൗട്ടുണ്ടെങ്കിലും ആ അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അംഗൻ എന്താണെങ്കിലും ഇങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കീ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ പിന്നെ നമുക്ക് പൈസ ട്രാൻസ്ഫറ് ചെയ്യാണെങ്കിലും നമുക്കൊരാൾക്ക് പൈസ തരണോന്നുണ്ടെങ്കിൽ അവർക്ക് മൊബൈൽഫോണി മൊബൈൽ വഴി പേയ്റ്റിഎമ്മ് ഗൂഗിൾപേ അങ്ങനെ ഒരുപാട് ആപ്പ് വഴി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇതിലൊക്കെയാണ് ഇപ്പഴത്തെക്കാലത്ത് കൂടുതലായിട്ടും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് അതായത് സ്മാർട്ട്ഫോൺ യൂസ് ചെയ്യുന്നത്